പത്ത് ഇ ക്ലാസ്സിൽ പഠിപ്പിച്ച ജിൻസി സിസ്റ്ററിനെ ഞാൻ ഇന്നു ഓർക്കുന്നുണ്ട് മലയാള അദ്ധ്യാപികയായിരുന്ന സ് ടീച്ചർ വളരെയധികം സ്വാധീനം എൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ ഒരു വ്യക്തിത്വം തന്നെയാണ് കാരണം അദ്ധ്യാപകൻ എന്നതിൽ എന്നതിലുപരി എന്നിലൊരു മാതാവിനു തുല്യമായി എന്നെ എൻ്റെ എനിക്ക് ഒരമ്മ എന്നൊരു സ്ഥാനം നൽകാൻ സാധിക്കുന്നൊരു ടീച്ചർ തന്നെയാണ് ജിൻസി ടീച്ചർ വളരെ സുന്ദരിയും വളരെ വളരെ പഠന കാര്യത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും വളരെയധികം മറ്റുള്ളവരിൽ മറ്റുള്ളവരെ സ്വാധീനിച്ചിരുന്ന ടീച്ചർ ഇന്നും ഓർക്കാൻ സാധിക്കുന്നൊരാൾ തന്നെയാണ് കാരണമെന്തെന്നാൽ പഠനത്തിലുപരി കുട്ടികളുമായി ഇടപെടാനുള്ള ടീച്ചറിൻ്റെ കഴിവിനെ സമ്മതിച്ചു നൽകുക മാത്രമേ സാധിക്കുകയുള്ളൂ കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം കുട്ടികളുമായുള്ള സമ്പർക്കം കുട്ടികളിൽ ഇടപെടാനുള്ള ടീച്ചറിൻ്റെ കഴിവ് വളരെ മനോഹരമായതു തന്നെയായിരുന്നു പത്താം ക്ലാസ്സിലെ എൻ്റെ പ്രണയം കണ്ടെത്തിയതും ടീച്ചർ തന്നെയായിരുന്നു എന്നാൽ അത് പിള്ളേരുടെ കുട്ടികളി എന്ന നിലക്ക് ടീച്ചർ കണ്ട് വിട്ടു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വളരെയധികം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചൊരു ടീച്ചർ ഞാൻ എന്നും ഓർക്കാൻ കൊതിക്കുന്നൊരു മുഖം ടീച്ചറിൻ്റെ തന്നെയാണ് എന്നു ഞാൻ നിസ്സംശയം എവിടെ വേണമെങ്കിലും പറയും കാരണം ടീച്ചർ അത്രയും സുന്ദരിയും അത്രയും എനിക്ക് ഒരു മാതാവിന് മാതാവിനു തുല്യമായ സ്ഥാനം എനിക്ക് നൽകാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്ത്വമാണ് ജിൻസി ടീച്ചർ അതു ഞാൻ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും പറയുന്നത് എബ് ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചെല്ലും മുന്നിൽ പോകും സംസാരിക്കും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ടീച്ചറിൻ്റെ കഴിവ് ടീച്ചറിൻ്റെ പിള്ളേരോടുള്ള സമ്പർക്കത്തിനുള്ള കഴിവ് വളരെ മനോഹരം തന്നെയായിരുന്നു അതിമനോഹരമായ പാഠ ഭാഗങ്ങൾ അതിലും വിശാലമായ രീതിയിൽ മിസ്സ് ടീച്ചർ മറ്റു കുട്ടികൾക്ക് പകർന്നു നൽകുന്നത് ഞാനിപ്പോഴും ഓർക്കും തല്ലിപ്പൊളി ആയിരുന്ന ഞാൻ ടീച്ചറാണ് വിജയത്തിലേക്ക് പിടിച്ച് വലിച്ചു കയറ്റിയത് എന്നെനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും കാരണമെന്തെന്നാൽ തോൽവി തോൽവി അതുവരെ മറ്റേ ഇൻ്റർണൽ എക്സാമാണെങ്കിലും എന്ത് എക്സാമാണെങ്കിലും തോറ്റു കൊണ്ടിരുന്ന എന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും ടീച്ചർ നല്ല രീതിക്ക് പഠിപ്പിച്ചു എന്നെ അത്രയും അത്രയും സപ്പോർട്ട് ചെയ്ത ടീച്ചർ ടീച്ചറിനെ ഞാനെന്നും ഓർക്കാൻ ശ്രമിക്കും ജിൻസി ടീച്ചർ മുരിക്കാശ്ശേരി സെയ്ൻ്റ് മേരിസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്ത് ഇ ക്ലാസിലെ ജിൻസി ജി ജിൻസി ടീച്ചർ ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചറിനെ ഓർക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് കാരണം വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഒരു ടീച്ചർ എന്ന നിലക്ക് ഞാൻ എന്നും ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്കൊരു ഒരു തവണ കൂടി ടീച്ചറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ സാധിച്ചിരുന്നെങ്കിലും ഞാനാഗ്രഹിക്കുകയാണ് വളരെയധികം എന്നിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്ത്വമായിരുന്നു ജിൻസി ടീച്ചർ വളരെയധികം എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും തന്നെ അങ്ങനെ തന്നെയാണ് മറ്റുള്ള എല്ലാവരെയും എല്ലാവരെയും ഒരുപോലെ കാണുവാനും ഒരുപോലെ ഉയർത്തിക്കൊണ്ട് വരാനും ജിൻസി ടീച്ചർ മാക്സിമം നോക്കിയിരുന്നു എന്നതിനു തെളിവാണ് ഞങ്ങൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനും നിതിൻ വിജയ് എന്ന എൻ്റെ കൂട്ടുകാരനും ഞങ്ങൾ തോൽവിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഞങ്ങളെ വിജയത്തിൻ്റെ പടുകുഴിയിൽ തോൽവിയുടെ പടു കുഴിയിൽ നിന്ന് വിജയത്തിൻ്റെ പാതയിലേക്ക് നയിച്ചത് ജിൻസി ടീച്ചറായിരുന്നു വളരെയധികം നന്ദി ടീച്ചർ ഞാൻ എനിക്കൊന്നു കൂടി ടീച്ചറിൻ്റെ മകനായി ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പഠിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് ടീച്ചറിന് പ്രായമായി വരികയാണ് ഇനി എനിക്ക് സാധിക്കില്ല എൻ്റെ പഠന രംഗത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വം ജിൻസി ടീച്ചറാണെന്നു ഞാൻ എവിടെ വേണമെങ്കിലും ആരോടു വേണമെങ്കിലും തുറന്നു പറയുന്നതാണ് തള്ളികളായിരുന്നൊരു പ്രണയത്തെ ടീച്ചർ അത്രയും മനോഹരമാക്കി നൽകി അഞ്ച് വർഷം എൻ്റെ കൂടെയുണ്ടായിരുന്ന അവൾ എൻ്റെ ഒരബദ്ധത്തിൻ്റെ പേരിൽ തന്നെ എന്നെ ഇട്ടിട്ടു പോയി അതും ടീച്ചറും ടീച്ചറും തമ്മിലുള്ള ബന്ധം എന്തെന്ന് അല്ല ടീച്ചറിൻ്റെ സപ്പോർട്ട് കൊണ്ടു തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നത് ബി എ മലയാളം തേർഡ് ഇയറിൽ സീറോ സപ്ലി സപ്ലി ഒന്നു ഇല്ലാണ്ട് ഇവിടം വരെ എത്തണം മലയാളം പഠിപ്പിച്ച ആ ടീച്ചറിൻ്റെ ഒറ്റൊരു മിടുക്കുക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന് ഉറച്ച വിശ്വാസം എനിക്ക് ഇന്നും ഉണ്ട് ടീച്ചറിൻ്റെ

ടീച്ചർ നല്കിയ സ്നേഹവും കരുതലും എല്ലാം ഇന്നും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് ജീവിതാവസാനം വരെ ഞാനോർക്കും ടീച്ചറിൻ്റെ ഓർമ്മകളിൽ തന്നെ നമ്മൾ എന്നും ജീവിക്കും എന്നതാണ്